ആ ഏതാണ് സിസ്റ്റം ആ വേറെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടോ ആ ആ ആ ഓക്കെ ആ നിങ്ങൾ എന്തായാലും ഷോറൂമിലേക്ക് വരുമോ അതാകുമ്പം ഷോറൂമിലേക്ക് വരുമോ ഇതിലൂടെ നമ്മൾ സംസാരിച്ചാൽ ഇപ്പോൾ മനസ്സിലാവുകയില്ല അതുകൊണ്ടാണ്

ആ എത്ര ആയി വാങ്ങിയിട്ട് ആ ഓക്കെ ഓക്കെ ഞാൻ എന്തായാലും നോക്കാം കംപ്ലൈയിൻറ് നിങ്ങൾ ഇന്ന് തന്നെ വരാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ വരാം കേട്ടോ

ഇ എം ഐ ആയിട്ട് അടയ്ക്കാം

ആ പുതിയത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെല്ലിൻ്റെ തന്നെ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോഡൽ വന്നിട്ടുണ്ട്

വേറെ

ആ പിന്നെ പിന്നെ വേറെ കംപ്ലൈയിൻറ്റൊന്നും ഇല്ലല്ലോ

മ് ഓക്കെ